ഇന്ത്യയിലെ പ്രാദേശിക ഭാഷ ഹിന്ദിയാണ് ഓരോരോ സംസ്ഥാനങ്ങളിലെ ഭാഷ മലയാളം ഹിന്ദി കർണാടക മറാഠി ഗുജറാത്തി അതുപോലെത്തന്നെ ബംഗാളി കന്നഡ തെലുങ്ക് അതുപോലത്തെ ഓരോ ഭാഷകളുണ്ട് നമ്മൾ സംസ്കാരത്തിനും വൈവിധ്യത്തിനും അനുസരിച്ച് ഭാഷകൾക്ക് മലയാളം കലർന്ന കന്നഡയും കന്നഡ കലർന്ന മലയാളവും തമിഴും അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഭാഷ വൈവിധ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തെ ഭാഷ വൈവിധ്യങ്ങളേക്കുറിച്ചുള്ള എനിക്ക് അഭിപ്രായം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നാട്ടിൽ നൂറ് ഭാഷയായിട്ടാണ് മലയാളം പോലും കേരളങ്ങളിൽ പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ ഓരോരോ ഭാഷയായിട്ടാണ് നമുക്ക് ചിലപ്പം മനസ്സിലാവില്ല കാരണം വയനാട്ടിൽ നിൽക്കുന്നൊരാൾക്ക് കോഴിക്കോടുള്ളൊരാളുടെ ഭാഷ മനസ്സിലാവില്ല അതുപോലെത്തന്നെ മനസ്സിലാവും അവരുടെ ശൈലികൊണ്ട് വ്യത്യാസമുണ്ട് അതുപോലെത്തന്നെ ആണ് ഭയങ്കര ഭാഷ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്